ഹലോ ഹലോ അലോക് സാറല്ലേ സാർ സാറിനൊരു ഡെലിവറി ഉണ്ടായിരുന്നു ആ അതെ ആമസോണില് നിന്നാണ് അയ്യോ സർ ആ സാർ അയ്യോ വീട്ടിലില്ലേ അപ്പോള് ഇതിപ്പോള് എവിടെയാണ് കൊടുക്കേണ്ടത്

ആ ആ സാറപ്പം ആ സാർ സൈൻ ചെയ്യാനുണ്ടായിരുന്നല്ലോ ഇതിനകത്ത്

ആ സർ അങ്ങനെയാണെങ്കില് കുഴപ്പമില്ല സാര് മറ്റേ നമ്മുടെ ഓഫീസില് ഒരു ഞാനൊരു ഒരു ഒരു ഡോക്യുമെൻ്റ് അയച്ചുതരാം സാറതില് എഴുതിത്തന്നാല് മതി അത് ആ പ്രോഡക്ട് ഏതാണെന്നല്ല സാർ ഓഫീസില് നിന്ന് സൈൻ ചെയ്തുകൊള്ളാമെന്ന് എനിക്കിത് മാനേജറിനെ കാണിക്കേണ്ടി വരും അതുകൊണ്ടാണ് ആ അപ്പം ആ ആ ആ ഓക്കേ അപ്പോള് ഞാനത് അയച്ചുതന്നുകൊള്ളാം സാർ ഈ വീട് നെയ്ബറിൻ്റെ വീട് കറക്ട് ആ നെയ്ബറിനെ സാറിൻ്റെ വീടിൻ്റെ മഞ്ഞ വീട് സാർ ഇവിടെ രണ്ട് മഞ്ഞ വീടുണ്ട് ആ റൈറ്റ് സൈഡിലെ ആ ഓക്കേ ആ അവിടെ കൊടുത്താല് മതിയോ

അ ആണോ അയ്യോ അത് കടിക്കുമോ

ആ ഓക്കേ

ആ ആ

ഓ സാർ ആ ആ ആ ലേയ്റ്റാകുമോ സാർ ആ ആ ഓക്കേ ആ കാര്യങ്ങൾ മനസിലായി സാർ സാര് പേയ്മെൻറ്റ് നടത്തിയിട്ടുള്ളതല്ലേ ആ ഓക്കേ ആ ഏയ് കുഴപ്പമില്ല കുഴപ്പമില്ല നോക്കട്ടേ കേട്ടോ ഒരു മിനിറ്റ് ആ അല്ല സാർ സാർ പേയ്മെൻ്റ് നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ആ ആ ഒരാള് നടന്നുവരുന്നുണ്ട് നേരെ നോക്കട്ടെ ആ അതെ അതെ അതെ അതെ ആ ആ പുള്ളിക്ക് ഒരു സാധനം കീ കൊണ്ടുതന്നിട്ടുണ്ട് ഇതുംകൊണ്ട് പുറകിലത്തെ ഗേയ്റ്റ് കയറിയാല് മതിയോ പട്ടിയെ അഴിച്ചുവിട്ടേക്കുകയായിരിക്കുമോ ഇനി അയ്യോ അപ്പോള് ഞാൻ പുറകിലേക്ക് ചെന്നുകഴിയുമ്പോള് പട്ടി അവിടെ വരില്ലേ ഓ ആ ഓക്കേ സാറെ ഈ പുറകിലത്തെ ഗേയ്റ്റ് ഏതിലെയാണ് കയറേണ്ടത്

ആ ഓക്കേ സാർ ഇത് അവിടെ കൊണ്ടുവെച്ചാല് മതിയല്ലെ ആ കാര്യങ്ങള് മനസിലായി കുഴപ്പമില്ല ആ മനസിലായി ആ ആ ആ ഓക്കേ ആ ഓക്കേ ഓക്കേ ശരി എന്നാല് ഓക്കേ താങ്ക് യൂ ഓക്കേ